തീർച്ചയായും ഗ്രാമീണ സമുദായത്തിൽ പരമ്പരാഗതമായ നൃത്ത രൂപങ്ങളെ സംരക്ഷിക്കുന്നതിലും മെച്ചപ്പെടുത്തുന്നതിലും ഒക്കെ പ്രാധാന്യം ചെലുത്തേണ്ടത് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സമുദായം എടുക്കുന്നെങ്കിൽ അവിടെയുള്ള ആചാരങ്ങൾ അനുഷ്ടാനങ്ങൾ അവരുടെ വേഷ വിധാനങ്ങൾ നൃത്ത രൂപങ്ങൾ ഇതെല്ലം ആ ഒരു അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വികർ രൂപപ്പെടുത്തി എടുത്ത് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് നമ്മുടെ വരും തലമുറകളും എന്തു ചെയ്യണം അറിയണം അറിഞ്ഞിരിക്കണം അനുഭവിക്കണം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പാരമ്പരാഗതമായിട്ട് കിട്ടിയ കാര്യങ്ങളെല്ലാം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ടതാണ് നൃത്ത രൂപങ്ങൾ ഇപ്പോൾ ഈ നൃത്ത രൂപങ്ങളും പൂർവികർ അവർ ഒരുപാടു പേർ ഉണ്ടായിരുന്നതാണ് അവരെല്ലാവരും കൂടി എന്താ പറയുക രൂപപ്പെടുത്തി എടുക്കുന്നതാണ് ചിലപ്പോൾ ഒരു വ്യക്തിയാകാം അപ്പോൾ അവർ രൂപ രൂപപ്പെടുത്തി എടുത്തത് അവരുടെ കഴിവ് കൊണ്ടാണ് ആ ഒരു കഴിവ് നമ്മളെന്തു ചെയ്യണം ബഹുമാനിക്കണം ആ ഒരു കഴിവിനെ നമ്മൾ ആദരിക്കണം അതിനെ എന്താ പറയുക അതുപോലെ നില നിർത്തണം നമ്മളെക്കൊണ്ട് കഴിയുമെങ്കിൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക എന്ന് വെച്ചിട്ട് ആ ഒരു കലാ രൂപത്തെ എന്താ പറയുക മാറ്റാൻ ശ്രമിക്കരുത് അതെങ്ങനെ തന്നെയാണോ അങ്ങനെ തന്നെ നില നിർത്തുക പക്ഷെ അതിന് എത്രെയും എന്ത് കൊടുത്തിട്ടും എന്തെയ്യാ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കണം എപ്പോഴും കാരണം ഇതെന്ന് പറയുന്നത് ഒരു സമുദായത്തിനെ പ്രതിനിധീകരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ പൂർവ്വികർ കഷ്ടപ്പെട്ട് ക്രീയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ രൂപപ്പെടുത്തിയെടുത്തതാണ് ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ നൃത്ത രൂപങ്ങളുടെ തന്നെ എന്താ പറയുക പ്രത്യേക തരം ഒരു ശൈലി ഉണ്ടായിരിക്കും പിന്നെ വേഷ വിധാനത്തിൽ വ്യത്യാസം ഉണ്ടാകും അല്ലെങ്കിൽ അവർ തന്നെ രൂപപ്പെടുത്തി എടുത്തതാണ് അതിലെ ആ ഒരു നൃത്ത രൂപത്തിലെ ഓരോരോ കാര്യങ്ങളുമെന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാം അവരുടെ ഒരു കഴിവും കൂട്ടായ്മയും ഒക്കെക്കൊണ്ടായി കൊണ്ടാണ് എന്താ പറയുക രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നത് അതിനെ നമ്മൾ സംരക്ഷിക്കണം അത് നമ്മുടെ വരും തലമുറക്ക് വേണ്ടിയിട്ടാണ് അവരിത് അറിയണം അല്ലെങ്കിൽ അവർക്ക് ഭാവിയിൽ അറിയാൻ പറ്റില്ല ഇങ്ങനെ ഒരു നൃത്ത രൂപം ഉണ്ടായിരുന്നെന്നോ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനത്തെ ആചാരങ്ങളും അനുഷ്ടാനങ്ങളും ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ നൃത്ത രൂപങ്ങളാണ് നൃത്ത രൂപങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ അവരും അറിഞ്ഞിരിക്കണം അവരറിയാതെ പോകരുതത് അതപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ വേണം എന്തെയ്യാ നമ്മുടെ തലമുറക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ സംരക്ഷിക്കാനുള്ളത് ഇപ്പോൾ കണ്ടില്ലേ പാടങ്ങളൊക്കെ നികത്തുന്നു ഇനിയുള്ള വരും തലമുറയിലെ കുട്ടികൾ അന്യ സംസ്ഥാനങ്ങളിൽ ആയിരിക്കും ചിലപ്പോൾ പാടങ്ങൾ ഇതാണ് എന്നും പറഞ്ഞു പഠിക്കുന്നതൊക്കെ നേരിട്ട് നമ്മുടെ കാണാനുള്ള സാഹചര്യവുമില്ല പണ്ടൊക്കെ ആയിരുന്നു അത് അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള നൃത്ത രൂപങ്ങളും പരമ്പരാഗതമായിട്ടല്ലെങ്കിൽ ഗ്രാമീണ സമുദായത്തിൽ ഉള്ള പാരമ്പരാഗതമായിട്ടുള്ള നൃത്ത രൂപങ്ങളെല്ലാം എന്തെയ്യാ നമ്മൾ സംരക്ഷിക്കുക അതിനെ അന്യം നിർത്തി പോകാൻ പാടില്ല